എന്റെ ഈ ജീവിത കാലത്തിനിടയിൽ കൂടുതലായും വന്ന സാങ്കേതിക വിദ്യയിലെ മാറ്റം എന്നു പറയുന്നത് മൊബൈലുകളിലാണ് പലതരം ഫീച്ചേർസ് കൂടിയും അത് മാറ്റത്തോടെ പുതിയ പുതിയ രീതികൾ കണ്ടെത്തുകയാണ് അതിൽ പലപല ദൂഷ്യഭാഗങ്ങളും പലപല നല്ല ഭാഗങ്ങളുമുണ്ട് ഗുണവും ദോഷവും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോബൈലുകളാണെങ്കിലും സോഫ്റ്റ്വെയെഴ്സ് ആണെങ്കിലും ലാപ്ടോപ്പുകളാണെങ്കിലും ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെ കാലങ്ങളിൽ മൊബൈൽ ഫോണുകൾ വളരെ ചെറുതും കൂടാതെ സ്വിച്ചുകളുള്ളതുമായിരുന്നു എന്നാലിപ്പോൾ ടച്ച് സ്ക്രീനുകളായി പിന്നീടിപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് പോലും ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മൊബൈൽ ഫോണുകളുടെ നിയന്ത്രണങ്ങൾ മാറിയിരിക്കുന്നു പലരും അത് നല്ല രീതിയിലുള്ള ഉപയോഗത്തിനും പലരും അത് ചീത്തരീതി ഉപയോഗത്തിനും ഉപയോഗിക്കുന്നു

സാങ്കേതികവിദ്യ തട്ടിപ്പുകളും ഇപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരുപാട് പേർ സാങ്കേതിക തട്ടിപ്പുകൾക്ക് ഇരയാവുകയും മറ്റ് സ്ഥലത്ത് സാങ്കേതിക വിദ്യ കാരണം ഒരുപാട് പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുമുണ്ട്